തീർച്ചയായിട്ടും പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി തന്നെയാണ് ഞാൻ അല്ലെങ്കിലും ആർക്കാണ് പാട്ട് കേൾക്കാനിഷ്ടമില്ലാത്തത്

മലയാളം ഹിന്ദി തമിഴ് മൂന്ന് ഭാഷകളിലെ പാട്ടാണ് ഞാന് പ്രധാനമായിട്ടും കേൾക്കാറുള്ളത് ശരിക്കും സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും പാട്ടുകളുടെ രീതികള് മാറുന്നത്

ഏതൊക്കെ തരത്തിലുള്ള പാട്ടുകളായിരിക്കും എന്ന് നമുക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് സന്തോഷമാണെങ്കിൽ സന്തോഷം തരുന്ന പാട്ടുകളാണ് കൂടുതലും കേൾക്കാറുള്ളത് ആഘോഷവേളകളിലാണെങ്കിൽ നൃത്തമാസ്വദിക്കാനും നൃത്തം ചെയ്യുവാനും മതി മറക്കുവാനുള്ള പാട്ടുകളായിരിക്കും പിന്നെ സങ്കടമുള്ളപ്പോഴാണെങ്കിൽ അതിൻ്റെ ഒരു സ് സ സങ്കടത്തിൻ്റെ ഒരു എസ്സെൻസുള്ള പാട്ടുകളായിരിക്കും കേള്ക്കാറുള്ളത്

എന്തെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ബർത്ത് ഡേ ആണെങ്കിലോ അങ്ങനെയുള്ള അവസ്ഥകളില്ഇങ്ങനെ പ്രധാനപ്പെട്ട പാട്ടുകള് കേള്ക്കാറുണ്ട് ഇങ്ങനെയുള്ള പാട്ടുകളെ കൂടാതെ ക്രിസ്തീയ ഭക്തിഗാനങ്ങളും കേൾക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ലിറ്റേർജിയിലെ ഗാനങ്ങള് വളരെ പ്രാവശ്യം കേൾക്കുകയും അതിനോടൊപ്പം പാടുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ പാട്ട് പാടാൻ ഇന്ന സാഹചര്യം ഇന്ന തരം ഏത് തരം എന്നൊന്നും എന്നതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം മനുഷ്യൻ്റെ മനസ്സ് വളരെ നിഗൂഢമായൊരു കാര്യമാണ് അപ്പോള് ഏത് സാഹചര്യത്തിലായിരിക്കുന്നു ചിലപ്പോള് പാട്ടിനായിരിക്കും ചിലപ്പോള് നൃത്തത്തിനായിരിക്കും ചിലപ്പോള് മറ്റ് പലതിനുമായിരിക്കാം അത് അതിനോടൊത്ത് മനുഷ്യനെ നേരിടാനായിട്ടവനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങള് ആയതിനാൽ തന്നെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ എനിക്കും ഇഷ്ടമാണ് ഇനി ദേശത്തിലെ നാടൻ ക പാട്ടുകളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ ദേശത്തിനെക്കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ നാടൻ പാട്ടുകളൊന്നും എഴുതപ്പെട്ടതായിട്ടുള്ള അറിവ് എനിക്കില്ല നാടൻ പാട്ടുകൾ ഉണ്ട് നാടൻ പാട്ടുകളുടെ മത്സരങ്ങള് നാടൻ പാട്ടുകൾ പാടുന്ന കുട്ടികളൊക്കെ ഉണ്ട് പക്ഷേ ഒരിക്കലും ഞങ്ങളുടെ ഗ്രാമവും ഞങ്ങളുടെ നാടുമായിട്ട് ബന്ധപ്പെടുത്തിയ ഞങ്ങളുടെ ദേശവുമായിട്ട് ബന്ധപ്പെടുത്തിയ നാടൻപാട്ടുകൾ പ്രധാനമായിട്ടും കണ്ടുവരുന്നില്ല എന്നാണ് ശരിക്കും പാട്ടുകളുടെ തന്നെ വൈവിധ്യങ്ങൾ വളരെയേറെയാണ് നാടൻ പാട്ട് മാപ്പിളപ്പാട്ട് ദേശഭക്തിഗാനങ്ങൾ ഇങ്ങനെ ഒരുപാട് രീതികള് ഇപ്പോള് പാട്ടുകളുണ്ട് അതുപോലെ ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ ഇതൊക്കെ അതിനകത്തു പെടുന്നൊരു കാര്യമാണ് ഒന്നും കുടി ഞാന് ചുരുക്കിപ്പറഞ്ഞാൽ എനിക്കും പാട്ട് കേൾക്കാനിഷ്ടമാണ് അത്യാവശ്യം എല്ലാ തരം പാട്ടുകളും കേൾക്കുന്നൊരു വ്യക്തിയാണ് നാടൻ പാട്ടുകളാസ്വദിക്കാറുണ്ട് പക്ഷേ ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകിച്ച് നാടൻ പാട്ടുകളൊന്നും ഇല്ല